എനിക്ക് നൃത്തം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകൾ നല്ല എനർജെറ്റിക്ക് ആയിട്ടുള്ളത് സിനിമ പാട്ടാണേലും ഡിവോഷണൽ ഭക്തി പാട്ടായാണെങ്കിലും കുഴപ്പം ഇല്ല പക്ഷേ നല്ല എനർജെറ്റിക്ക് ആയിട്ട് ഇങ്ങനെ തുള്ളിത്തുള്ളി നിൽക്കുന്ന കൂട്ട് പാട്ടാണ് എനിക്കിഷ്ടം ഞാൻ ഡാൻസ് അങ്ങനെ പേഴ്സണൽ ആയിട്ട് പഠിച്ചിട്ടില്ല ഡാൻസ് ചെറിയതോതിൽ കളിച്ചിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് അത് ഈശ്വര പ്രാർത്ഥന അങ്ങനെയുള്ള ഡാൻസ്കളാണ് കളിച്ചേക്കുന്നത് പിന്നെ ഇപ്പം ഇത്രയും പ്രായമായപ്പം ഞങ്ങൾ കൂട്ടായ്മയിലൊക്കെ എല്ലാവരും കൂടെ കൂട്ടും കൂടി കരോൾ ക്രിസ്മസിൻ്റെ കരോളിനൊക്കെ എല്ലാവരും കൂടെ കൂടി ഡാൻസൊക്കെ കളിക്കാറുണ്ട് പാട്ട് നല്ല തെറിച്ച് തെറിച്ച് നിൽക്കുന്ന പാട്ട് വേണം എന്നാലാണ് നമുക്കാ ഡാൻസ് കളിക്കാനുള്ള ഡാൻസ് കളിക്കാനുള്ള ഇൻസ്പിരേഷൻ കിട്ടത്തുള്ളൂ ചില സമയത്തൊക്കെ ഡാൻസ് കളിക്കുമ്പം വിഷമം വന്നിട്ടുണ്ട് കാരണം നമ്മൾ നന്നായിട്ട് ഡാൻസ് കളിക്കാൻ നമുക്ക് അറിയിത്തില്ല നമുക്കൊരു എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല ഡാൻസ് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എൻ്റെ ശരീരം വഴങ്ങുന്നതാണോ അല്ലയോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ട് അപ്പം പേടി തോന്നിയിട്ടുണ്ട് ചില സമയത്തൊക്കെ കാരണം നമുക്ക് നിർബന്ധപൂർവം കളിക്കേണ്ടി വന്ന സ്റ്റേജ്കളുണ്ട് അപ്പം അവിടെക്കെ നമ്മൾ പേടി പേടി പേടിയോട് കൂടി കളിച്ചിട്ടുണ്ട് പിന്നെ ഇത് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാ കാണാനും നല്ല ഇഷ്ടമാണ് ഞാൻ മഠത്തിൽ സിസ്റ്ററാകാൻ പോയപ്പോൾ അവിടെ ഡാൻസ് കളിക്കേണ്ടി വന്നു അപ്പോൾ ഭയങ്കര പാടായിരുന്നു പക്ഷേ പാടായിരുന്നു കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഒക്കെ ഉണ്ടായിരുന്നു ഏതായാലും കളിച്ചു ഇപ്പോൾ പേടിയൊന്നും ഇല്ല ശരീരം വഴങ്ങിയാലും വഴങ്ങിങ്ങിയില്ലെങ്കിലും കളിക്കും അത്രയൊക്കെയുള്ളൂ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഡാൻസ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കേ എനിക്ക് ഡാൻസിനെക്കുറിച്ചറിയത്തുള്ളൂ ഡാൻസിനെ കുറിച്ച് വലിയ കാഴ്ചപ്പാടൊന്നും എനിക്കറിയത്തില്ല പിന്നെ പഠിപ്പിക്കാൻ ഡാൻസ് അറിയത്തില്ലേലും എൻ്റെ പിള്ളേരൊക്കെ ചുമ്മാ തുള്ളിച്ചാടി തുള്ളിച്ചാടി ഞാൻ കളിപ്പിക്കും പഠിപ്പിക്കുകയൊക്കെ ചെയ്യും കുച്ചിപ്പിടി ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനെയ ഡാൻസുകൾ ഡിസ്കോ ഡാൻസ് ഈശ്വര പ്രയർ ഡാൻസ് അതൊക്കെ കളിക്കാനായിട്ട് ഇഷ്ടമാ പക്ഷെ നമുക്കിതൊന്നും അറിയത്തൊന്നും ഇല്ല